അഞ്ച് ഏഴ് ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പത്ത് പന്ത്രണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മൂന്ന് അഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തിയേഴ് ആറ് ഒൻപത് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പന്ത്രണ്ട് എട്ട് രണ്ടായിരം